ആ എനിക്കൊരു ബാഗ് വേണമായിരുന്നല്ലോ ആ എനിക്കൊരു ബാഗ് വേണമായിരുന്നു ആ ഇനി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കാണ് ഒരുപാട് വലുത് വേണ്ട എവിടെ ഏത് റേറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ആ ആ കളറുകളോ കളറുകൾ ആ ആ ആ ആ ആ ആ ആ എന്നാലും മതി എനിക്ക് ഒത്തിരി വലുത് വേണ്ട പുറത്തിട്ടുകൊണ്ട് പൊവുമ്പോഴേ ഇങ്ങനെ താഴോട്ടിങ്ങനെ നീണ്ട് കിടക്കുന്ന ആ അങ്ങനത്തേത് വേണ്ട കുട്ടികളുടെ പുറത്ത് തന്നെ ഇടുന്ന അതുപോലെ തന്നെ ആ ബാഗിൻ്റെ രണ്ട് കൈ ഉണ്ടല്ലോ അവിടെ കുറച്ച് സ്പോഞ്ച് കൂടതൽ ഉള്ള ടൈപ്പും വേണം പിന്നെ വാട്ടർ ബോട്ടിൽ വയ്ക്കാനുള്ള പൗച്ച് വേണം അങ്ങനെയുള്ളതൊക്കെയാണ് വേണ്ടത് അതിനൊക്കെ എത്രയാവും ആണോ ആ ആ കളർ കുട ആണോ അത് കുട്ടികളുടെ കുട ആണോ അതോ നമ്മുടെ വയ മുതിർന്നവർ ഉപയോഗിക്കുന്ന

ആ ആ ആ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ വേറെ എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടോ ബാഗിൻ്റെ കൂടെ അത്രയും വേണ്ട ആ അത്രയും വേണ്ട അത്രയും വേണ്ടാ അത്രയും വേണ്ട എനിക്ക് ഒരു വർഷം ഉപയോഗിക്കാനുള്ള ആ ഒരു ക്വാളിറ്റി മതി ആ എത്ര വാട്ടർ ബോട്ടിൽ അല്ല അത് വയ്ക്കാനുള്ള ആ ഒരു പോക്കറ്റ് വേണം ബാഗിൽ വാട്ടർ ബോട്ടിലും കൂടെ വയ്ക്കാനുള്ള പോക്കറ്റും കൂടെ വേണം ആ ആ ആ ഓക്കെ ഓക്കെ ഞാൻ വരാം കേട്ടോ

ഓക്കെ ഓക്കെ ഓക്കെ